ഒരു വലിയ കൂട്ടം ആളുകൾക്ക് വേണ്ടി പാചകം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഇരുപത് പേർക്ക് വേണ്ടി ഒരിക്കൽ പാചകം ചെയ്യാൻ അവസരം ഉണ്ടായി അത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ വർഷത്തെ ഓണം തന്നെ ആയിരുന്നു ഓണത്തിൻ്റെ രണ്ട് ദിവസം മുൻപേ എൻ്റെ ഓഫീസിലെ എൻ്റെ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞു ഓണം അല്ലേ അത് നിൻ്റെ വീട്ടിൽ കൂടിയാലോ എന്ന് എന്തായാലും വയ്യാ എന്ന് പറയാൻ പറ്റില്ലല്ലോ അത് കൊണ്ട് ഞാനും അമ്മയും വീട്ടിൽ തന്നെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി ഞങ്ങൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു പതിനെട്ട് പേർ എൻ്റെ ഓഫീസിൽ നിന്നും അത് കൂടാതെ തന്നെ എൻ്റെ വീട്ടിലെ എല്ലാവരും കൂടി ചേർത്ത് ഒരു ഇരുപത്തിയഞ്ച് പേർക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ആ സാധാരണയായി നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ നമ്മളുടെ വീട്ടുകാർ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുന്ന അതിഥികൾ അവർ മൂന്നോ നാലോ പേർ എപ്പോഴെങ്കിലും വരുന്ന അതിഥികൾ അങ്ങനെ മാത്രമാണ് ഉണ്ടാകാറ് ഇത് ഇത്രയും വലിയ ഇത്രയും ഒരു ഇരുവത് ഇരുവത്തഞ്ച് പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആദ്യമായാണ്